മൺപാത്ര നിർമ്മാണം മരപ്പണി ഒക്കെ തുടങ്ങിയ പണികളെല്ലാം വൈദഗ്ധ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള തൊഴിലുകളാണ് അത് കേവലം ഒരു തൊഴിലായി കണക്കാക്കാൻ സാധിക്കില്ല കാരണം അത് പരമ്പരാഗതമായി കൈമാറി വന്നിട്ടുള്ളവയാണ് ഒരാളുടെ കഴിവുകൾ എത്രത്തോളം തെളിയിക്കാൻ പറ്റുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും തെളിയിക്കാൻ പറ്റുന്ന പണികളാണ് മൺപാത്ര നിർമ്മാണവും അതുപോലെത്തന്നെ മരപ്പണിയും മരപ്പണി മരംകൊണ്ട് പല രീതിയുള്ള ഭംഗിയുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കതിനെ കാണാൻ ഒത്തിരി ശില്പങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അതൊക്കെ നമുക്ക് കാണാറും സാധിക്കാറുണ്ട് അതുപോലെത്തന്നെ ഏറ്റവും ഭംഗിയുള്ള കലങ്ങളും കുടങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ കൈപ്പണിക്കാർ നിർമ്മിക്കാറുണ്ട് ഇന്ന് കുറവ് ആണെങ്കിലും പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരുടെ അളവുകൾ വളരെ അധികം കുറവാണെങ്കിൽ കൂടി ഗ്രാമപ്രദേശങ്ങളിൽ നാടൻ നാടിൻ്റെ ഉള്ളിലേക്ക് ഗ്രാമങ്ങളിൽ ഇന്നും ഇതെല്ലാം ചെയ്ത് ഇതെല്ലാം വിറ്റു ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഒരു ഗ്രാമത്തിൽ തന്നെ ഏകദേശം ഒരു പത്ത് ഇരുപതോളം പേരിന്നും ഈ പണികളെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെയൊരു വിശ്വാസം